എന്റെ വീട്ടില് പൂന്തോട്ടങ്ങൾ ഉണ്ട് റോസ് വെച്ചിട്ടുണ്ട് വാടാർ മല്ലി വെച്ചിട്ടുണ്ട് തെച്ചി വെച്ചിട്ടുണ്ട് ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ട് തുളസി വെച്ചിട്ടുണ്ട് ഡാലിയ വെച്ചിട്ടുണ്ട് ബംഗ്ലാവ് ചെടികൾ എല്ലാം വെച്ചിട്ടൊക്കെ ഉണ്ട് അതിനെന്താണ് ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥേന്റെ ഒരു മാറ്റം മഴ വന്നു വെച്ചു വെച്ചാ ഈ പൂക്കളെല്ലാം അങ്ങനെ കൊഴിഞ്ഞു കൊണ്ടു പോകും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അല്ലാതെ ഈ മഴ സമയത്തും ഭയങ്കര പുല്ലും ചെടികളും എല്ലാം അങ്ങനെ ഉണ്ടാകും അതിന് ഈ ഇടത്ത് ഇടയ്ക്കിടക്ക് നമ്മൾ അതിനെ വൃത്തിയാക്കണം അതല്ലാതെ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാറുണ്ട് അതിന് ഒരു താങ്ങലും നമ്മളിങ്ങനെ കൊടുക്കണം പിന്നെ ഇങ്ങനെ പൂക്കൾ പൂത്ത് കഴിയുമ്പോൾ അതിന്റെ പൂവിന്റെ കൊഴിഞ്ഞു പോകുന്ന പൂവിൻ്റെ എല്ലാം വെട്ടി അതിനെ വൃത്തിയാക്കി അത് ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ അതല്ലാതെ അതിന്റെ മണ്ണ് മണ്ണ് യോജിപ്പിച്ചില്ലെങ്കിൽ ആ ചെടി മുരടിച്ചു പോകുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതിന് വണ്ടുകൾ പുഴുക്കൾ എല്ലാം വന്നിരിക്കുമ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മള് മരുന്നടിച്ച് കൊടുക്കണം അതിന്റെ ഇലകളിൽ ഇങ്ങനെ ഒരു വിധം പുഴുക്കൾ വന്ന് ഇല മൊത്തം ചുരുണ്ടു പോകും അല്ലെങ്കിൽ പൂക്കൾ അങ്ങനെ മുരടിച്ച ഭംഗിയില്ലാതെ പോകും ഇത്രയൊക്കെ ഞാൻ കുറെ പൂക്കളെ പൂന്തോട്ടങ്ങൾ ചെടിയിലും വെച്ച് ചട്ടിയിലും വെച്ചിട്ടുണ്ട് അതല്ലാതെ മണ്ണിലും എല്ലാം വെച്ചിട്ടുണ്ട് നല്ല പോലെ മരുന്നും അതിനനുസരിച്ചിട്ട് വളവും എല്ലാം ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് പൂ പൂത്ത് വരുമ്പോൾ കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ് അതിനെ പരിപാലിച്ച് എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വെയില് വരുമ്പോൾ പിന്നെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര ഒച്ചാണ് അത് കടിച്ച് ആ ചെടിയിനെ മൊത്തം നശിപ്പിച്ചെടുക്കുകയും ചെയ്യും അതിനെ അതിന് ഉപ്പും എല്ലാം ഇട്ട് ആ ഒച്ചിനെ ഞങ്ങൾ നശിപ്പിക്കാറുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട് ആ പിന്നെ ഇടയ്ക്ക് മൺവെട്ടിയും കൊണ്ട് അതിനെ കൊത്തി മണ്ണിനെ ഇളക്കി അതിന് വേണ്ടത്ര വളം എല്ലാം ഇട്ടു കൊടുക്കാറുണ്ട് പിന്നെ വെയിൽ സമയത്താണ് എന്ന് വെച്ചാലും ദിവസം നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ആ ചെടി വാടിയും കൊണ്ടുപോയി ഒരു ദിവസം നമ്മൾ നനച്ചില്ലെങ്കിലും ആ ചെടി ചെടികൾക്ക് ഭയങ്കര വാട്ടം തട്ടുന്നതാണ് അതാണ് എൻ്റെ ശ്രദ്ധയും കൊണ്ടാണ് ഇത്രയും ആ ചെടി പൂത്ത് കൊഴിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഒക്കെയാണ് ആൾക്കാര് വന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ചെടികളൊക്കെ തരാമോ ഇതിന്റെ കൊമ്പുകൾ വെട്ടി തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ചെടി എന്ന് പറയുമ്പോഴേക്കും ചെടി നമ്മളുടെ ഒരു മക്കളിനെ പോലെയാണ് ഞാൻ ആ ചെടികളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദിവസം രണ്ടുനേരം അതിന് അടുത്ത് പോയി നിന്നിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ചെടികളിനോട്